നമ്മുടെ ഈ പതിനാല് ജില്ലയുള്ള കേരളത്തിൽ പതിനാല് ജില്ലകളിലും പതിനാല് ശൈലിയുള്ള ഭാഷകളാണ് എന്നുവെച്ചാൽ നമ്മളെ മലയാളം പതിനാല് ശൈലിലാണ് നമ്മള് ഈ കേരളക്കാർ ഉപയോഗിക്കണത് നമ്മളെ മാതൃഭാഷയായ മലയാളം അച്ചടി അച്ചടി മലയാളം നമ്മളാരും ഉപയോഗിക്കണില്ല ഇപ്പോ സ്കൂളുകളിലും എഴുതാനും വായിക്കാനും പഠിക്കാനും അല്ലാതെ മലയാളം അങ്ങനെ ഉപയോഗിക്കാറില്ലാരും അവർക്ക് അവരുടേതായ ശൈലിയിലും അവർ അവരുടേതായ ഓരോ നമ്മുടെ മലയാളത്തിൽ ഓരോ ഓരോ വാക്കിനും പല പല നമ്മുടെ ജില്ലയിൽ പതിനാല് ജില്ലകളിലും പല അർത്ഥങ്ങളാണ് ഇപ്പോൾ വയനാട് ജില്ലയിൽ ഒരു വാക്കിനൊരു അർത്ഥാമാണെങ്കിൽ ചിലപ്പോൾ അത് കാസർഗോഡ് കാർക്കവിരിക്ക് മൻസ്സിലായെന്ന് വരില്ല കാസർഗോഡ് കാസർഗോഡുകാരുടെ അവരുടെ മലയാളം പക്ഷേ പക്ഷേ കോഴിക്കോടുകാർക്കും മനസ്സിലായെന്ന് വരില്ല അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ മാതൃഭാഷ ഇപ്പോഴാരും പിന്നെ മലയാളം അച്ചടി മലയാളം ഇപ്പോഴാരും ഉപയോഗിക്കണില്ല അവർ അവരുടെ ശൈലിയിലുള്ള സംസാരാണിപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത് ഇതാണ് പ്രാദേശിക ഭാഷയും നമ്മുടെ മലയാളവും തമ്മിലുള്ള വ്യത്യാസം കുറേ അർത്ഥ വ്യത്യാസങ്ങളുണ്ട് രണ്ട് മലയാളം തമ്മിൽ ഓരോ നാട്ടിൽ ഓരോരോ ഓരോ സംസാരത്തിലും നമുക്ക് മനസിലാക്കാൻ കഴിയും ചിലപ്പോൾ അവർ സംസാരിക്കണത് നമുക്ക് മനസിലാകില്ല ചിലപ്പോൾ വേറെ ജില്ലക്കാർ സംസാരിക്കുകയാണേൽ മറ്റ് ജില്ലക്കാർക്ക് മനസിലാകില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടിപ്പോൾ